റേഡിയോ ടെലിവിഷൻ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാള ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് മലയാള ഭാഷ മലയാളം അമ്മയാണ് ഏ മലയാളമാണ് മലയാള ഭാഷ നമ്മുടെ അമ്മയെന്നാണ് പറയപ്പെടുന്നത് ഭാഷ വിവിധ രീതികളിൽ ഉപയോഗിക്കുന്നുണ്ട് റേഡിയോയിലെ ഭാഷയും അതുപോലെ തന്നെ ടെലിവിഷൻ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിലെ ഭാഷയും തമ്മില് വ്യത്യാസം നമ്മൾക്ക് കാണുവാൻ സാധിക്കും ശെരിയായ രീതിയിൽ ഭാഷയുപയോഗിക്കുന്നത് മിക്കവാറും റേഡിയോയിലെ ഭാഷണങ്ങളെല്ലാം നേരായ രീതിയിലുള്ളവയാണ് അച്ചടി ഭാഷയിൽ വരുന്ന വ്യത്യാസങ്ങള് ഓരോ ഓരോ നാട്ടിലും ഓരോ ഭാഷകളാണ് പ്രയോഗിക്കുന്നത് എന്നാൽ ടെലിവിഷനിൽ കാണുന്ന ഭാഷയും അതുപോലെ തന്നെ അച്ചടിയിൽ കാണുന്ന ഭാഷയും തമ്മില് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ടെലിവിഷനിൽ ഓരോ പ്രാദേശിക നാട്ടിലേയും ഭാഷകൾ നമ്മള് കേൾക്കാറുണ്ട് അത് ഓരോ ചാനലിലും വ്യത്യസ്തമായി നമ്മൾക്ക് കേൾക്കപ്പെടുവാൻ സാധിക്കുന്നു എന്നാൽ ഞാന് പറയുന്നത് റേഡിയോയില് ഭാഷകള് എന്താണ് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് വ്യക്തമായ രീതിയില് നേരായ രീതിയില് ശെരിയായ രീതിയില് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളില് വരുന്ന ഭാഷ അച്ചടിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടോ പ്രാദേശിക വൈവിധ്യങ്ങൾ കൊണ്ടോ വ്യത്യാസങ്ങൾ തോന്നാറുണ്ട് പണ്ടു കാലങ്ങളെ അപേക്ഷിച്ച് മാധ്യമങ്ങളില് പത്രങ്ങളിലൊക്കെ വരുന്ന ഭാഷകളിൽ അച്ചടിയിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് ആണോ എന്നറിയില്ല ഭാഷകൾ മറ്റ് രീതിയിലേക്ക് വഴി മാറി പോകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അച്ചടി ഭാഷ എപ്പോഴും കൃത്യമാകണമെന്നില്ല എങ്കിലും മലയാള ഭാഷയിൽ വരുന്ന മറ്റ് ഭാഷകളെ അപേക്ഷിച്ച് മലയാള ഭാഷകളില് പൊതുവെ പിശകുകള് വളരെ കുറവാണ് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്